ആയിരുന്നു

ഇത് ബോട്ടിംഗ് സർവീസ് സെൻ്ററല്ലേ ആ ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുന്നതാണേ ഞങ്ങൾക്ക് ഒരു ബോട്ട് വേണമായിരുന്നല്ലോ ഒരു വേമ്പനാട് നമുക്ക് കുട്ടനാട് കുട്ടനാട് മൊത്തം ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ ഒരു പാക്കേജെന്ന് പറയാമോ ഒരു ബോട്ട് വേണം

ഞങ്ങൾക്ക് ഇരുപത്തി ആറ് പേരാണുള്ളത് പറ്റുമോ ആ അപ്പം നിങ്ങൾക്ക് സർവീസ് തുടങ്ങുന്നത് എത്ര മണിക്കാണ് രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ ആണ്

ഓക്കെ ശരി ശരി അവിടെ എല്ലാ ഓക്കെ നിങ്ങൾക്ക് ഫുഡ് പിന്നെ നമുക്ക് മറ്റു ഫെസിലിറ്റീസ് ആ എല്ലാം എന്തൊക്കെയാണ് അവൈലബിൾ നിങ്ങളുടെ നിങ്ങളെ ബോട്ടിംഗ് സർവീസ് എന്തൊക്കെയാണ് അവൈലബിൾ ഞങ്ങൾക്ക്

ഇപ്പം നമുക്ക്

ഇപ്പം ഹോൾ ഡേയ്ക്ക് ഒരു ഇരുപത്താറു പേർക്ക് എത്ര രൂപയാവും അക്കുമ്പം ഇത് അത് എമൗണ്ടൊക്കെ എങ്ങനെയാണ് ഓക്കെ എല്ലാം ഉൾപ്പെടെ ഇതിൽ ഈ നമക്കിപ്പോൾ എക്സ്ട്രാ നമുക്കിച്ചിരി കുടിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നവർക്കൊക്കെ ഇച്ചിരി ഒക്കെ വേണം അങ്ങനെ എന്തെങ്കിലും അപ്പം ഇത് സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണോ ഓക്കെ ഓക്കെ ഇത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത് ശരി ഞങ്ങൾക്ക് ഓഗസ്റ്റ് എട്ടാം തീയ്യതിയിലൊരു ബുക്കിംഗുണ്ടേ അപ്പം ഇരുപത്താറ് പേർക്കാണേ പിന്നെ ഫുഡ് അക്കോമഡേഷൻ ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം ഒരു ഒരു ആറേഴ് മണിവരെയൊക്കെ കാണുമോ അത് കുഴപ്പം ഇല്ല പൈസ കുഴപ്പം ഇല്ല

ഓക്കെ നമ്മൾ ഈ നമ്പരിൽ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ മാഡം